ആ ഹലോ ആ പറഞ്ഞോ ആ ഓക്കെ അല്ല എനി എനിക്ക് കോള് വന്നില്ലായിരുന്നു ഇപ്പഴാണ് കോള് കണക്ട് ആയത് അതെ അതെ അതെ അതെ അതെ ആ ഓക്കെ പറഞ്ഞോളൂ ആ ഓക്കെ ഓക്കെ നമ്മള് നമ്മള് കൂട്ടുന്നത് അല്ലല്ലൊ കേന്ദ്രത്തിൽ നിന്ന് കൂട്ടി വിടുന്നല്ലേ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കുറയ്ക്കാനോ കൂട്ടാനൊന്നും നമുക്കിവിടെ പറ്റത്തില്ലല്ലോ അവര് പറയുന്ന വിലയ്ക്കല്ലേ നമുക്ക് തരാൻ പറ്റുകയുള്ളു ഏജൻസിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവര് ഓക്കെ പറഞ്ഞോ നമ്മളെ കൊണ്ട് പറ്റുകയെന്ന് വെച്ചാല് അത് നിങ്ങൾക്കെല്ലാം കൂടെ നിങ്ങൾക്കങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് കംപ്ലയിൻറ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ഇട്ടിട്ടങ്ങനെ കൊണ്ട് കൊടുക്കുക ഡയറക്ട് അല്ലാതെ ഏജൻസിക്കൊന്നും ചെയ്യാന് പറ്റത്തില്ല നമുക്ക് തരിക എന്നുള്ളതെ ഉള്ളൂ അല്ലാണ്ട് കുറയ്ക്കാനോ കൂട്ടാനൊന്നും നമുക്ക് സ്വന്തായിട്ട് ചെയ്യാന് പറ്റില്ല നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നു എന്നല്ലെ ഉള്ളൂ നമ്മളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലെയിന്റ് ഉണ്ടെങ്കിൽ നേരിട്ട് ഏജൻസിയിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക നമ്മളവിടെ കൊ ഓക്കെ അപ്പോൾ ആ അതുണ്ട്

നിങ്ങൾക്ക് ഇങ്ങ് ഓക്കെ ഓക്കെ നിങ്ങൾ നിങ്ങൾ അത് മനസ്സിലാക്ക് നമുക്ക് നമ്മളും സാധാരണ മനുഷ്യർ തന്നെയാണ് നമ്മളും ഇങ്ങനെ ഗ്യാസ് എടുത്ത് കത്തിച്ച് ജീവിക്കുന്നവരൊക്കെ തന്നെയാണ് അപ്പോൾ ഇവര് കൂട്ടുന്നത് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാന് പറ്റത്തില്ല അവര് കുറച്ചാൽ നമുക്കും കുറയ്ക്കാം അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ടോ അല്ലെങ്കില് ഇവിടെ വന്ന് ഏജൻസിക്കിവിടെ വന്ന് കംപ്ലയിൻറ്റ് തരിക അതല്ലെങ്കിൽ നിങ്ങള് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കംപ്ലയിൻ്റെ എല്ലാവരുടെയും കൂടെ ആർക്കൊക്കെ കംപ്ലയിൻറ് ഉണ്ടോ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ലെറ്റർ അയക്ക് അങ്ങനെന്തെങ്കിലും ചെയ്യ് അല്ലാണ്ട് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ്

ആ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല

അതെ നമ്മ അതെ നമ്മളത് ഞാൻ പറഞ്ഞല്ലോ മാഡം നമുക്ക് മാഡം ന മാഡം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടുത്തെ വെറും ഒര് വർക്കറ് മാത്രമാണ് അല്ലേൽ ഏജൻസി സ്റ്റാഫാണ് എന്നെ കൊണ്ട് ഏജൻസിക്കോ നമുക്കോ അത് കുറയ്ക്കാൻ ഗ്യാസിൻ്റെ വില കുറയ്ക്കാൻ പറ്റില്ല അവിടുന്ന് കുറച്ച് അവിടുന്ന് കുറയ്ക്കുകയാണേൽ നമുക്കും കുറയ്ക്കാം അതല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മള് സ്വന്തമായിട്ട് കൂട്ടുന്നതും അല്ല ഇത്

സർവീസ് ചാർജ് ഞാനിവിടെ സംസാരിക്കാം ഇപ്പം ആ മാഡം അല്ലേല് നമുക്കും നിങ്ങളുടെ അടുത്തുള്ള അല്ലേൽ ആരേലും അഞ്ചാറ് പേരെയോ വല്ലതും വിളിച്ചൊര് കംപ്ലയിൻറ്റ് പോലെ എഴുതി കൊണ്ടുവന്നവിടെ തരിക അതിനെ പറ്റി അപ്പം നമുക്ക് ആലോചിക്കാം അത് കുറയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരാളുടെ മാത്രം അഭിപ്രായം കേൾക്കുന്നില്ലല്ലോ എല്ലാവരുടെയും കൂടിയാകുമ്പത്തേക്കും നമുക്ക് എടുക്കുക ഒര് തീരുമാനെടുക്കുക ഇവിടെ പറഞ്ഞിട്ട്

ഓക്കെ ഞാൻ പറഞ്ഞല്ലോ മാഡം അത് ആ ഈ പറഞ്ഞത് ഇത്രയും നേരം പറഞ്ഞതിൽ ഈ ഒര് കാര്യം നമുക്കിവിടെ പറയാം ഇവിടെ പറഞ്ഞത് മാഡം ഞാൻ പറഞ്ഞത് പോലെ തന്നെ അഞ്ചാറ് പേര് നിങ്ങളുടെ അടുത്തുള്ള മൂന്നാലഞ്ച് പേരെ വിളിച്ചിട്ട് ഒര് കംപ്ലയിൻറ്റ് പോലെഴുതി നമുക്ക് തരിക അപ്പോൾ അതിവിടെ ഞാൻ അവതരിപ്പിക്കാം ഇവിടെ പറയാം ആ നടപടിയുണ്ടാക്കാം കുറയ്ക്കാം അതിന് എന്തേലു ഒര് അല്ലാണ്ട് മൊത്തത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സർവീസ് ചാർജിലൊരു പരിധിയിൽ നമുക്ക് കുറച്ച് തരാം

ഓക്കെ ചെയ്യാം ചെയ്യാം അതിനെ പറ്റി ഇവിടെ പറയാം ഓക്കെ ഓക്കെ ശരി താങ്ക്യൂ മാം